പാചകം എന്നത് വീട്ടിലെ സ്ത്രീകളുടെ മാത്രം തൊഴിലാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ആണുങ്ങൾക്കും പാചകം ചെയ്യാം ഒരു വീട്ടിലെ ജോലിയിൽ ആ വീട്ടിലെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എൻറ്റെ വീട്ടിൽ എൻറ്റെ അച്ഛനും ഏട്ടനും ആവശ്യത്തിന് പാചകം ചെയ്യുന്ന കൂട്ടത്തിലാണ് പാചകം സ്ത്രീകൾക്ക് മാത്രം ഉള്ളതായി അവർ കാണുന്നില്ല വ്യത്യസ്തമായ വിഭ് വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കുകയും അത് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് കഴിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ സന്തോഷമാണ്